ഒരു ഉത്സവദിനത്തിന് എന്തൊക്കെ ചെയ്യുന്നേ ചോദിച്ച് വന്നാൽ രാവിലെ തന്നെ രണ്ടു മണി മുതല് സ്റ്റാർട്ട് ചെയ്യും രാവിലെ പുലർച്ചെ രണ്ടു മണി മുതല് പൂജ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തൊഴുത് അമ്പലമൊക്കെ വലം വെച്ച് അത് കഴിഞ്ഞ് ദൈവത്തിന് അങ്ങനെ എല്ലാ ദൈവത്തിനും കൂടിയിട്ട് എല്ലാവിടെയും ഓരോരോ പൂജ ചെയ്തിട്ട് പിന്നെയാണ് ഉത്സവം ആരംഭിക്കുകയുള്ളൂ ഉത്സവം തുടങ്ങുമ്പോൾ എല്ലാവരും ഒത്തൊരുമയോടു കൂടിയാണ് തുടങ്ങണത് അവ കൊടിയേറ്റമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കൊടിയേറ്റമൊക്കെ നടത്തി കഴിഞ്ഞിട്ടൊക്കെയാണ് ഉത്സവങ്ങളൊക്കെ തുടങ്ങുന്നത് ഉത്സവം തുടങ്ങിയെന്ന് പറഞ്ഞാൽ രാവ് ഉച്ചയ്ക്ക് അവിടെ അന്നദാനം ഉണ്ടാവും അതെല്ലാവരും ഇരുന്ന് കഴിക്കുകയും അത് രാത്രി ആയിയെന്നു പറഞ്ഞാൽ പടക്കം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കുറേ പിന്നെ രാത്രിയും ദൈവത്തിനെ പൂജിച്ചിട്ടായിരിക്കും എല്ലാ പരിപാടിയും തുടങ്ങുന്നത്